മാതൃഭാഷയുടെ മധുരവും വാത്സല്യവും ആവോളം അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മുടെ മുൻ തലമുറ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് താമസിച്ചാലും നമ്മുടെ നാടിൻ്റെ ഓർമ്മകളും കേരളത്തിൻ്റെ തനിമയും ഒക്കെ നിലനിർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ജീവിതക്രമവും കേരളീയ സമൂഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുകയും ചെയ്യുന്നുണ്ട് മാതൃഭാഷയ്ക്ക് മലയാളികൾ നൽകി വരുന്ന ഈ പരിഗണന ആശങ്കാജനകമാണെന്ന് പറയാതെ വയ്യ മക്കൾക്ക് മലയാളം നമ്മൾ വായിക്കാനും എഴുതാനും അറിയില്ല എന്നത് അഭിമാനത്തോടെ പറയുന്നു ഓരോ മാതാപിതാക്കളും സ്കൂളുകളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കാലു തട്ടി മറിഞ്ഞു വീണ ഒരു കുട്ടിയാണെങ്കിലും മലയാളത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് കരയുന്നത് ശിക്ഷ നൽകിയ വാർത്ത അടുത്ത കാലത്ത് ഒരു എറണാകുളത്തെ ഒരു സ്കൂളിൽ നിന്നും നമ്മൾ അറിയും അറിഞ്ഞതുമാണ് നമ്മുടെ പുത്തൻ തലമുറയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട് അമ്മിഞ്ഞപ്പാൽ പോലെ മാതൃഭാഷയും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ നിർണ്ണായക സ്വാധീനം ചെലുത്തുന്നതാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും അതിനെ നിരാകരിക്കാൻ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നുമുണ്ട് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം എന്നു പറയുന്നത് മലയാളം ലോകത്ത് മൂന്നരക്കോടിയിലധികം ആളുകൾ മലയാളം സംസാരിക്കുന്നവരായിട്ടുണ്ട് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്